ബ്രോ ബ്രോ ഇപ്പോൾ എവിടെ എത്തി ബ്രോനെ കാണുന്നില്ലല്ലോ കറക്റ്റ് ഇപ്പോൾ ബ്രോ എവിടെയാണ് ബ്രോ അവിടുന്ന് കുറച്ചു കൂടി നേരെ പോരട്ടെ നേരെ പോന്നിട്ട് ഒരു ഒരു ആൽമരം ഉണ്ട് ആൽമരത്തിൻ്റെ സൈടികൂടെ ഒരു വഴിയുണ്ട് ആ വഴിക്ക് കുറച്ച് പോരുമ്പം ഒരു റേഷൻകട ഉണ്ടാകും അതിൻ്റെ സൈടിലായിട്ട് ഒരു വീടുണ്ട് അവിടെയായിട്ട് ഞാൻ നില്പുണ്ട് കറക്റ്റ് ആ വഴിക്ക് വന്നാൽ മതി നേരെ മറ്റെ ആ ആൽമരം വഴി വരുമ്പോൾ ഒരു റേഷൻകട ഉണ്ടാകും അതിൻ്റെ സൈടിലിട്ടോ